ആ അതെ അതെ അതെ അതെ അതെ

ഓക്കെ ആ ആ ആ

കാപ്പിയാണോ അല്ലെങ്കിൽ ഉച്ചയ്ക്കത്തേക്ക് ആണോ വൈകുന്നേരത്തേക്ക് ആണോ അല്ലെങ്കിൽ ഒരു ഉച്ചയ്ക്ക് ഭക്ഷണം അങ്ങനെ വല്ലതും വേണോ

ആ ആ മതി അല്ലേ ആ ആ അത് ഏതാണ് നിങ്ങളുദ്ദേശിക്കുന്നത് ഇപ്പം നമുക്ക് എന്ത് ഇപ്പം നമ്മൾ കാപ്പിയും അല്ലെങ്കിൽ ചായയും കൂടി രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വേണ്ടേ അപ്പോൾ നമുക്ക് ഒരു ഒരു എഴുപത്തഞ്ച് ശതമാനം കാപ്പിയാക്കി ഒരു ഇരുപത്തഞ്ച് ശതമാനം ചായയും ആക്കാം സാധനങ്ങളൊക്കെ നല്ല നല്ല ഫ്രഷ് സാധനമായിരിക്കും അതിന് കുഴപ്പമൊന്നും ഇല്ല ആ പിന്നെ നമുക്ക് ആ മതി എന്നാൽ കുഴപ്പം ഒന്നുമില്ല ആ പക്ഷെ നമ്മൾ അതിനകത്ത് കൊടുക്കുന്നത് പപ്സോ ങേ അങ്ങനെ അത് അല്ലേൽ ഒരു കട്ലേറ്റോ അങ്ങനെ ചെറുകടിയായിട്ട് മതിയോ ബനാന പഫ്സ്സ് ഞാൻ നോക്കാം കുഴപ്പം ഒന്നുമില്ല ഓക്കേ ഇത് എന്നത്തേക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് മാർച്ച് ഇരുപത്തിയഞ്ച് അപ്പോൾ വേറൊരു കാര്യമുണ്ട് കേട്ടോ നമ്മൾ ചെയ്യണ്ടതൊരു പകുതി ശതമാനം അഡ്വാൻസ് മേടിക്കും നമ്മൾ അ പകുതി ശതമാനം അഡ്വാൻസ് മേടിക്കും ആ ആ ആ ഓക്കെ ഓക്കെ ഓക്കെ അത് ഉച്ചയ്ക്കാണല്ലേ ആ ആ ആ അത് തരാം അത് കുഴപ്പമൊന്നും ഇല്ല അത് കഴിഞ്ഞ് ഇനി വേറൊര് കാര്യമുണ്ട് നമ്മൾ അവിടെ എത്തിക്കണോ അല്ലെങ്കിൽ നിങ്ങളുടെ അവിടുന്ന് ഇവിടെ നിങ്ങൾ വന്ന് അത് കൊണ്ടുപോകുമോ എങ്ങനെയാണ് വേണ്ടത്

ആ ആ ആ അത് നിങ്ങൾ വന്ന് കൊണ്ടുപോയിക്കോളും ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ അത് ആ ഡേറ്റ് മറന്നുപോയല്ലോ ഒന്നും കൂടെ പറഞ്ഞേ ഡേറ്റ് മാർച്ച് ഇരുപത്തി അഞ്ച് ങാ ങാ ങാ ങാ ങാ അത് ഇപ്പം രണ്ടും കൂടി വരുമ്പോൾ പിന്നെ കാപ്പി കാപ്പി എങ്ങനെയാണ് ബ്രൂ കാപ്പിയാണോ അപ്പോൾ അതിൻ്റെ ഇരുപത്തി അഞ്ച് പതിനഞ്ച് മുപ്പതും നാ ഒരു നാൽപത്തി അഞ്ച് രൂപ വരും അല്ല അല്ല അല്ല ഒരു ഒരു ഐറ്റത്തിന് ഒരു കാപ്പിയും ഒരു കടിക്കും ങാ നാൽപത്തി അഞ്ച് വരും അപ്പോൾ അതിന് സമ്മതമല്ലേ സമ്മതമാണെങ്കിൽ ഇപ്പം തന്നെ പറയണം അല്ലെങ്കിൽ നമുക്ക് വേറെ മ്മ് എന്നാ ഓക്കെ ഓക്കെ ഓക്കെ നാളെ നാളെ തന്നെ അഡ്വാൻസ് എത്തിക്കണം കേട്ടോ എന്നാലെ അടുത്ത പരിപാടി നമുക്ക് നോക്കാൻ പറ്റുകയുള്ളു ഓക്കെ ആ ശരി എന്നാൽ ഓക്കെ